ജീവിതത്തിൽ കളിക്കുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വളരെ അധികമാണ് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് അധ്യാപകരൊക്കെയും പറയും പഠനമാണ് ഏറ്റവും വലുത് പഠനമാണ് ഏറ്റവും വലുത് മിക്ക അധ്യാപകരും അങ്ങനെയാണ് പറയുക പക്ഷേ വളരെ വളരെ അധികം കുറവ് അധ്യാപകർ പറയും പഠനത്തോടൊപ്പം നമ്മൾ കലകളും വളർത്തണം കാരണം ജീവിതത്തിൽ അതിനുള്ള പ്രാധാന്യം വളരെ വലുതാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിക്കാറുണ്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ അധ്യാപകരാണ് നമുക്ക് കൂടുതലും വേണ്ടത് പഠനത്തിന് മാത്രമല്ല ചില ആൾക്കാർ ഇപ്പോൾ കലകൾ മാത്രം ഉപയോഗിച്ചിട്ട് ജീവിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ മാതാപിതാക്കൾ ഒക്കെയും കലകളിൽ പഠനത്തിൽ കൂടുതൽ ഇമ്പൊ പ്രാധാന്യം നൽകിയിട്ട് കലകളെ ഒന്ന് താഴ്ത്തി നിർത്തുന്ന എന്താന്ന് വെച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കലകളെ ഉപയോഗിച്ച് കലകൾ വെച്ചിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കുറച്ച് ആൾക്കാർക്കേ പറ്റുള്ളൂ എല്ലാവർക്കും ഈ കലകളും മുന്നോട്ടു കൊണ്ടുപോയിട്ട് അത് വെച്ചിട്ട് അവരുടെ ജീവിതം മുന്നോട്ടു കൊണ്ടു പോകാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് അവർ പഠനത്തിന് കൂടുതൽ ഇതാക്കുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ കലകൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രാധാന്യമുള്ളതാണ് എല്ലാ എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം മിക്ക ആൾക്കാർക്കും അവർക്ക് ജന്മനാ കിട്ടുന്ന കുറെ കഴിവുകൾ ഉണ്ട് അപ്പോൾ അതൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ ഓരോ കലകളാണ് ഇപ്പോൾ പലതരം കലകൾ എൻ്റെ അറിവിലുണ്ട് പക്ഷേ എല്ലാം അതിനുള്ളിൽ ഉൾപ്പെടുന്നതല്ല കാരണം നിരവധി ഉണ്ട് പക്ഷേ എ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന കുറച്ച് കലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൃത്തം അതുപോലെ തന്നെ സംഗീതം പിന്നെ പടം വരയ്ക്കുക അങ്ങനത്തെ കുറെ കലകളാണ് എൻ്റെ മനസ്സിൽ വരുന്നത് പിന്നെ കുറെ എന്താ പറയാ നമ്മുടെ കേരളത്തിൽ ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള കുറെ കലകൾ ഉണ്ട് കഥകളി അങ്ങനെ കുറെ അതുപോലെയൊക്കെയുണ്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കലകൾക്ക് ഭയങ്കര പ്രാധാന്യമാണ് ചെറുപ്പം മുതലേ കുട്ടികളിൽ അവരുടെ വാസന മനസ്സിലാക്കിയിട്ട് അത് കൂടുതൽ പഠിപ്പിക്കാനും അത് കലാവാസന കൂട്ടാനും അധ്യാപകരായാലും മാതാപിതാക്കൾ ആയാലും സഹായിക്കണം വലുതാകുമ്പോഴാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മുടെ കലകളൊക്കെ ചില സമയത്ത് മനസ്സിലാക്കിയിട്ട് ഇത് ഇങ്ങനെയുണ്ട് നിനക്ക് ഒരു കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഉള്ളിലത്തെ കലാവാസനെയൊക്കെയും വളരെയധികം വളർത്തുന്നത് കൂട്ടുകാരും നമ്മളെ സഹായിക്കുണുണ്ട് അപ്പം അതാണ് കലകളെ പറ്റിയിട്ട് പറയാനുള്ളത്